ഞാൻ എനിക്ക് ഒന്നിലധികം തവണ ആവർത്തിച്ചു വായിച്ചിട്ടുള്ള ഏതെങ്കിലും ബെസ്റ്റ് പുസ്തകം ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബഷീറിൻ്റെ മതിലുകൾ എന്ന് പറഞ്ഞ പിന്നെ നോവൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കത് പിന്നെ ഡിഗ്രിക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നു ഡിഗ്രിക്ക് നമുക്ക് ഒരു വിഷയം ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ബഷീറിൻ്റെ മതിലുകൾ എന്നു പറഞ്ഞത് നമുക്ക് ചെറിയ ഒരു ബുക്ക് പോലെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ലതാണ് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല കഥയാണ് ഞാനത് രണ്ടു മൂന്നു വട്ടം അത് വായിച്ചിട്ടുണ്ടാവും എന്നു വച്ചിട്ടുണ്ടെങ്കിൽ മതിലുകൾക്കിടയിലുള്ള രണ്ട് പിന്നെ പ്രണയിനികളുടെ ആശയവിനിമയം കാര്യങ്ങളൊക്കെ ആണ് അതിലൂടെ പറയുന്നത് അതായത് ഇപ്പം രണ്ട് മതിലുകൾക്കപ്പുറത്ത് അതായത് രണ്ട് ജയിലിൽ താമസിക്കുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള അതായത് പെണ്ണും ഒരാണും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ മുഴുവൻ കാണുന്നത് അവർക്ക് ഭയങ്കര തമ്മിൽ ഭയങ്കര അതായത് കാണാതെ തന്നെ അവർക്ക് മനസ്സോട് മനസ്സുകൊണ്ട് അവര് ഒരുപാട് അടുത്തിട്ടുണ്ടാവും അപ്പം അവർ സംസാരിക്കുന്നതും കാര്യങ്ങളും ഒക്കെയാണ് അതൊരു സിനിമയായിട്ട് കാണാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിനിമയായിട്ട് ഉണ്ട് നമുക്കറിയാം മമ്മൂട്ടിയും കെ പി എ സി ലളിതയുമാണ് സിനിമയില് അഭിനയിച്ചത് അത് ഞാൻ കണ്ടിട്ടും ഉണ്ട് നല്ല അടിപൊളി സിനിമയുമാണ്